ഹലോ ആ ആരാണിത് പറഞ്ഞോളൂ ആ തേങ്ങേനിന്ന് ഓയിൽനേപ്പറ്റിയാണോ അതോ വെളിച്ചെണ്ണയെപ്പറ്റിയാണോ അതോ വേറെ തേങ്ങ ആയിട്ട് വേണ്ടതാണോ അതോ ആ ഉണ്ടുണ്ട് ഞങ്ങളിവിടെ കൃഷി ചെയ്തിട്ടാണ് ആ അപ്പം ഞങ്ങൾക്കിവിടെ നല്ല ഓയിലാണ് ഉള്ളത് ഞങ്ങളിവിടെ സ്വന്തമായിട്ട് ഞങ്ങളിവിടെ കൃഷി ചെയ്ത് അതുപോലെ തന്നെ പല സ്ഥലത്തെന്ന് ഇപ്പം പാലക്കാട് എവിടെ കേര കൃഷിയുണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങളിവിടുന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം തേങ്ങ ഓയില് ല എണ്ണ അല്ലാണ്ട് തേങ്ങയായിട്ട് വേണമെങ്കിൽ ആ ഓക്കെ ഓക്കെ ആ ആ അതെ അതെ അതെ ആ ആ അതെയതെ അപ്പപ്പിന്നെ തേങ്ങാച്ചണ്ടങ്കിൽ ഒരു കിലോയ്ക്ക് ഒരു അൻപത് രൂപ വെച്ചിട്ടാണ് ആ തേങ്ങായാട്ട് കൊടുക്കുന്നത് ഓയിലിനൊക്കെ ആണെങ്കിൽ ആ അതന്നെ അതന്നെ ഒരു കിലോ ഒരു കിലോയ്ക്കാണ് അൻപത് രൂപ വെച്ച് കൊടുക്കുന്നത് ആ അപ്പോൾ ആ അപ്പപ്പിന്നെ നിങ്ങൾക്ക് ആ അതെ അതെ ആ അപ്പപ്പിന്നെ ഓയിലിനക്കെ ആണെങ്കിൽ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റൻപത് രൂപായൊക്കെ ആകും അപ്പോൾ എല്ലാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും ശുദ്ധമായ തേങ്ങ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവൊന്നുവൊണ്ടാകത്തില്ല നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ നിങ്ങളുടെ വീട്ടിത്തന്നെ നിങ്ങളുടെ അഡ്രസ്സിത്തന്നെ എത്തിച്ച് തരുന്നതാണ് അതെ അതെ അതെ അതെ ആ നിങ്ങൾ നിങ്ങളുടെ ഫങ്ഷനക്കെ എന്നാണ് ആണല്ലേ അപ്പം ഇത് എത്ര പേരുടെ ഫുഡ്ഡാണ് നിങ്ങളറേഞ്ചു ചെയ്തിരിക്കുന്നത് ഓക്കേ അപ്പോൾ അതിന്റെ പകുതി ഓളമെങ്കിലും നമുക്കത് വേണം ആ അപ്പോൾ ശരിയെന്നേ